മറ്റുള്ളവരെ നൃത്തം പഠിപ്പിക്കാൻ എനിക്ക് അവസരം ലഭിച്ചിട്ടുണ്ട് ആദ്യമൊക്കെ വീട്ടിൻ്റെ അടുത്തുള്ള കുട്ടികളെ നൃത്തം പഠിപ്പിക്കുമായിരുന്നു പിന്നെ പിന്നെ കുട്ടികളെ കിട്ടി തുടങ്ങി അപ്പം ഞാൻ ചെറിയ രീതിയിലൊരു ഡാൻസ് ക്ലാസ്സ് തുടങ്ങി അവിടെ എനിക്ക് അത്യാവശ്യം കുട്ടികളുണ്ടായിരുന്നു അതുപോലെ തന്നെ കുട്ടികൾക്ക് അമ്പലങ്ങളിലും അതുപോലെ തന്നെ ചെറിയ ചെറിയ വേദികളിലൊക്കെ ഡാൻസ് കളിക്കാനും അവസരം ലഭിച്ചിട്ടുണ്ട് അതൊക്കെ കാണുമ്പം എനിക്ക് വളരെ അധികം സന്തോഷം തോന്നിയിട്ടുണ്ട് പിന്നെ പ്രോഗ്രാമ് കഴിയുമ്പോൾ എല്ലാവരും നല്ല അഭിപ്രായം പറയണ കേൾക്കുമ്പോൾ തന്നെ എനിക്ക് വളരെ അധികം സന്തോഷം തോന്നിയിട്ടുണ്ട് എൻ്റെ പാഷൻ എന്ന് പറയുന്നതു തന്നെ നൃത്തമാണ് അപ്പം പിന്നെ കുട്ടികൾ കുട്ടികളേ പഠിപ്പിക്കുമ്പോഴും അവർ നന്നായി കളിക്കുമ്പോഴും എനിക്ക് വളരെ അധികം സന്തോഷം തോന്നിയിട്ടുണ്ട് ഞാൻ പഠിപ്പിക്കുന്നത് അവർക്ക് മനസ്സിലായി എന്ന് അറിയുമ്പോൾ തന്നെ എനിക്ക് വളരെ അധികം സന്തോഷം തോന്നിയിട്ടുണ്ട് അതുപോലെ തന്നെ എൻ്റെ ഫ്രണ്ട്സ് ആയാലും എൻ്റെ പേരെൻസ് ആയാലും ഞാൻ നൃത്തം പഠിപ്പിക്കുന്നതും അതുപോലെ തന്നെ ഞാൻ നൃത്തം പഠിക്കുന്നതും കാണാൻ അവർക്ക് വളരെ അധികം ഇഷ്ടമാണ് അതുപോലെ തന്നെ പിന്നെ ഞങ്ങളുടെ കോളേജിലും എന്തെങ്കിലും ഒരു ഫെസ്റ്റിവൽ ഫെസ്റ്റിവല്ലോ അല്ലെങ്കിൽ ആർട്സോ വരുമ്പോൾ എൻ്റെ ഫ്രണ്ട്സിനൊക്കെ ഞാനാണ് പഠിപ്പിക്കാറുള്ളത്